തീര്ച്ചയായും ഇവയെക്കുറിച്ചെല്ലാം ഏകദേശ ധാരണയുണ്ട് ആയുര്വേദം വളരെ നല്ലതാണ് പൊതുവെ അലോപ്പതിയെ വെച്ച് നോക്കിക്കഴിഞ്ഞും വളരെ സൈഡെഫക്റ്റും അങ്ങനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആ ചികിത്സാസംവിധാനമാണ് ആയുര്വേദം ആയുര്വേദം ചികിത്സയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ഉണ്ട് ആയുര്വേദ ചികിത്സാരീതികള് ചെയ്തിട്ടുണ്ട് അതുപോലെതന്നെ ആയുര്വേദ ചികിത്സാരീതി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു കാരണം മറ്റ് ബുദ്ധിമുട്ടുകള് മറ്റു ചികിത്സാരീതികളെ വെച്ച് നോക്കുമ്പോള് ആയുര്വേദ ചികിത്സ വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്തതാണ് അതുപോലെതന്നെ ചികിത്സ ആയുര്വേദ ചികിത്സ മറ്റ് ചികിത്സകളെ കഴിഞ്ഞും ചിലവ് കുറഞ്ഞതാണ് ആയുര്വേദചികിത്സ പൊതുവേ ആളുകളിഷ്ടപ്പെടാനുള്ള കാരണവും അതു തന്നെ ആണെന്നാണ് കാഴ്ചപ്പാട് ഹോമിയോയും കുഴപ്പമില്ലാത്ത ഒരു ചികിത്സാരീതി തന്നെയാണ് ഹോമിയോ രി ചികിത്സയും വലിയ ചിലവേറിയതല്ല അതുകൊണ്ട് ഹോമിയോ ചികിത്സാരീതിയും പൊതുവേ ഇഷ്ടപ്പെടുന്നു സിദ്ധവൈദ്യത്തില് മറ്റൊരുപാട് തട്ടിപ്പുകള് ഒക്കെ ഇങ്ങനെ ഉള്ളതിനാല് അതിനോട് പൊതുവെ താല്പ്പര്യം ഇല്ല അല്ലെങ്കില് അതിനോടൊരു താല്പ്പര്യക്കുറവാണ് പൊതുവേ ഉള്ളത് ആയുര്വേദം തന്നെയാണ് ഇതിനേക്കാട്ടിലൊക്കെ വളരെ മെച്ചമായിട്ട് ഉള്ളത് ആയുര്വേദത്തിലെ പല ചികിത്സാരീതികളും പ്രകൃതിയില് നിന്ന് തന്നെയുള്ള ഒരു ഔഷധ കൂട്ടുകളായതിനാല് പൊതുവെ ഈ ചികിത്സാരീതി സാധാരണക്കാരായിട്ടുള്ളവര് ഇഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്നുള്ള ഫല സിദ്ധി കിട്ടിയില്ലെങ്കിലും പൊതുവെ ആയുര്വേദമാണ് അഭികാമ്യം എന്നാണ് മനസ്സിലാക്കാന് സാധിക്കുന്നത് അതുപോലെതന്നെ മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകള് ഈ ചികിത്സാരീതിയില് അധികം അനുഭവിക്കേണ്ടതായി വരില്ല അതുകൊണ്ടാണ് ആയുര്വേദത്തെ പൊതുവേ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആ ചികിത്സാരീതിയോട് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണവും